ഇവിടിപ്പോൾ ആഘോഷിക്കുന്ന കാര്യങ്ങളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം ഫെസ്റ്റിവെൽ ഇവിടുത്തെ വലിയൊരാഘോഷമാണ് അതുപോലെ തന്നെ വിഷു ദിപാവലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് ഇതൊക്കെയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ നമ്മൾ സദ്യ കഴിക്കും ഇപ്പോൾ അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കും അതുപോലെ തന്നെ അത്തപൂക്കളം ഇടും അങ്ങനത്തെ അങ്ങനൊക്കെയാണ് ഇത് ആഘോഷിക്കുക ദീപാവലിയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കുറേ പടക്കമൊക്കെ പൊട്ടിക്കുന്നു സ്വീറ്റ്സ് കഴിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വിഷുയെന്നു പറഞ്ഞാൽ വിഷു വിഷുക്കോടി എടുക്കും പിന്നെ വിഷുക്കണി കാണും കണി കാണുകാണുമെന്നു വച്ചാൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കണിയൊക്കെ കണ്ട് തിരിച്ച് വരും അവിടുന്ന് ഒരു ഒരു രൂപേൻ്റെ കോയിനൊക്കെത്തരും ഗോൾഡ് കോയിൻ അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് സദ്യ ഉണ്ടാകും അത് അങ്ങനെയൊക്കെയാണ് വിഷു ആഘോഷിക്കുക പിന്നെ ഇവിടുത്തെ വലിയൊരിതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവങ്ങളൊക്കെയുണ്ട് അമ്പലത്തിൽ ഉത്സവം അന്ന് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലായിരിക്കും പരിപാടികളൊക്കെ ഉണ്ടാകുക നാടകം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ടാകും പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെയുണ്ടാകും അതുപോലെ തന്നെ കഴിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ടാകും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഫെസ്റ്റിവൽസെന്നു പറയുന്നത്